എൻ്റെ നാട് എന്ന് പറയുന്നത് കോഴിക്കോടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നാട്ടിലെ വിദ്യാഭ്യാസ ഗുണ നിലവാരത്തിൽ ഞാൻ തീർത്തും തൃപ്തികരമാണ് ഞാൻ എന്ന് പറയുന്നത് മറ്റ് പുറത്ത് നിന്ന് ഒന്നും പോയി പഠിച്ച ഒരു വ്യക്തിയല്ല ഞാൻ എന്ന് പറയുന്നത് എൻ്റെ നാട്ടിൽ തന്നെ എൻ്റെ പ്രദേശത്തുള്ള സ്കൂളുകളിൽ തന്നെ പഠിച്ച് വന്ന ഒരു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇപ്പോൾ പറയുക പഠിച്ച സ്കൂൾ എന്ന് പറയുന്നത് ഭാരതീയ വിദ്യാഭവൻ എന്ന് പറഞ്ഞ സ്കൂളിലാണ് അവിടുത്തെ പഠിപ്പിക്കൽ ആണെങ്കിലും അവിടുത്തെ പഠന നില ഗുണ നിലവാരം ആണെങ്കിലും എന്താണ് എല്ലാവർക്കും തീർത്തും തൃപ്തികരമായ രീതിയിൽ തന്നെയാണ് ഇന്ന് ഇപ്പം ഞാൻ പഠിച്ച് എനിക്ക് ഒരു ജോലിയിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് തീർത്തും അതിന് അതിൻ്റെ പാതി ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എൻ്റെ കുടുംബക്കാർക്കും അത് പോലെ എന്നെ പഠിപ്പിച്ച ടീച്ചർമാർക്കുമാണ് അപ്പം ഞാൻ ഇന്ന് ഇങ്ങനെ എത്തിയതിന് കാരണം ഒരു അതിന് ഒരു കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഭാരത് വിദ്യാഭവൻ സ്കൂൾ തന്നെയാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്കൂൾ മാത്രമല്ല ഭാരത് വിദ്യാഭവൻ സ്കൂൾ മാത്രമല്ല ഓക്സ്ഫോർഡ് സ്കൂൾ അല്ലെങ്കിൽ സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞ പല തര പല സ്കൂളുകളും നമ്മുടെ പ്രദേശത്ത് അടുത്ത് ഉണ്ടെങ്കിൽ പോലും എല്ലാ സ്കൂളുകളും അതിന് വേണ്ടിയിട്ട് ഇപ്പം തീർത്തും പൂർണ്ണമായ വിദ്യഭ്യാസവും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഉറപ്പ് വരുത്തി തന്നെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഉയർന്ന വിജയ ശതമാനവും അല്ലെങ്കിൽ നല്ല അധ്യാപകരുമുള്ള നല്ല സ്കൂൾ തന്നെയാണ് ഈ പറഞ്ഞ എല്ലാ സ്കൂളും എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ നാട്ടിലെ സ്കൂളുകൾ തന്നെയാണ് ഇഷ്ടം കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ നാട്ടിൽ നിന്ന് പഠിക്കുന്ന ഒരു മഹത്വം പുറത്ത് ഒരു സ്കൂളിൽ പോയി പഠിച്ചാൽ നമുക്ക് ഒരിക്കലും കിട്ടതില്ല പ്രത്യേകിച്ച് പുറത്ത് പോകുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ലാംഗ്വേജിൽ നമ്മൾ തന്നെ പഠിക്കുമ്പോൾ അത് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ ഞാൻ പഠിച്ച സ്കൂളിലെ വിദ്യാഭ്യാസ നിലവാരം അന്നും ഇന്നും എല്ലാം ഒരുപോലെ തന്നെയാണ് എൻ്റെ അനിയൻ ആണെങ്കിലും അനിയത്തി ആണെങ്കിലും ഈ പറഞ്ഞ സ്കൂളുകളിൽ ഒക്കെ തന്നെയാണ് ഇപ്പോഴാണെങ്കിലും പഠിച്ച് വരുന്നത് അവർ ഇന്ന് നല്ലപോലെ പഠിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തി ഉത്തരവാദിത്വം ആ സ്കൂളിന് തന്നെയാണ് അപ്പം ഞാൻ അവിടുത്തെ വിദ്യാഭ്യാസ ഗുണനിലവാരത്തിൽ തൃപ്തരാണ്